ഹലോ ഇത് അക്ബര് ട്രാവല്സല്ലേ ഞങ്ങള്ക്കിവിടെ മൂന്നാറോട്ടൊന്നു പോവാന് പോവണ്ടിന്നു അതിന് പിന്നെ ഞങ്ങളിവിടെ ഒരു പത്ത് പതിനഞ്ചാള്ക്കരൊക്കെയുണ്ട് അതിപ്പോള് പോകണമെങ്കില് എങ്ങനെ നെക്കെ റേറ്റും ഇതൊക്കെ എങ്ങനെ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോള് എങ്ങനെ പോവുകയാണ് സുഖം ബസിന് പോകുകയാണോ അതോ വല്ല ഇതിലും പോകുകയാണോ സുഖം കാറില് പോകുകയാണോ സുഖം

റേറ്റും കാര്യങ്ങളൊക്കെ എത്രാവും അവിടൊക്കെ എല്ലാടത്തും ചുറ്റി കാണിക്കുവോ അതോ ഭക്ഷണമൊക്കെ അവിടുന്ന് കിട്ടുവോ രാവിലെയും രാത്രിയും ഉച്ചക്കൊക്കെ ഭക്ഷണങ്ങളൊക്കെ കിട്ടുമോ ന്നെങ്കില് നമുക്ക് ചോദിച്ചാണ്ടൊന്ന് ശരിക്കൊരു വിവരം പറയാന് വേണ്ടീട്ടേനു